ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് ചെടികൾ വളർത്താറ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ വളർത്താറുണ്ട് നല്ല ഇപ്പോൾ രീതിയിലുള്ള റോസയും ഡാലിയ ജമന്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ടും വളർത്താറുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മളിപ്പോൾ ചെറുപ്പം തൊട്ട് പരിപാലിച്ച് വരുന്നത് വരുന്നൊരു ചെടികൾ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് പൂവിടുമ്പോളൊക്കെ ഒരു ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ കൂടുതലായിട്ടും വളർത്താനിഷ്ടമിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴങ്ങളാണ് നല്ല രീതിയിലുള്ള പഴങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് പഴങ്ങൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്താ പറയുക സപ്പോട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വളർത്താൻ വേണ്ടിയിട്ടൊരു താത്പര്യം ഉണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പുറമെനിന്നൊക്കെ ഈ പഴങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിന് പലതരം കെമിക്കൽ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടായിരിക്കും ഇറക്കുക അപ്പോൾ നമ്മൾ നമ്മളുടെ വീട്ടിൽ സ്വന്തമായിട്ട് പഴങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നട്ട് പിടിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു പഴങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വലിയ എന്താ പറയുക ഇപ്പോൾ കെമിക്കൽ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറികൾ അപ്പോൾ പച്ചക്കറികൾ കൂടുതലായിട്ട് നമുക്ക് എന്താ പറയുക നല്ല രീതിയിലുള്ള പച്ചക്കറികൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്